ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫാഷൻ ശരിക്കും പറഞ്ഞാല് കേരളത്തിലൊക്കെ പഴയ കാലഘട്ടത്തെ ഇപ്പോൾ വീണ്ടും കൊണ്ടു വന്നേക്കുകയാണ് പഴയ കാലഘട്ടത്തിലെ പോലെ ലൂസ് പാൻസും ലൂസ് ഷേർട്ട്സും ലൂസ് ടീ ഷേട്ട്സും ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാലും ഏറെക്കുറെ സ്ത്രീകളും അതിലെ അതിൻ്റെ പാത പിന്തുടരാതെ പഴയകാല ഒരു മിഡിൽ ക്ലാസ് വിന്റേജ് ലുക്ക് കീപ്പിയ്യുന്ന പോലെ സാരിയൊക്കെയുടുത്ത് സാരി ചുരിദാര് അങ്ങനത്തെ ഡ്രസ്സുകളാണ് കൂടുതലും ധരിക്കാറുള്ളത് എനിക്കും അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതല് ധരിക്കാനിഷ്ടം അതൊക്കെ സാരിയൊക്കെ ഓൺലൈനിൽനിന്നു വാങ്ങാറുണ്ട് പിന്നെ ചുരിദാര് മെറ്റീരിയലുകള് കടയിൽനിന്നു വാങ്ങി സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കാറുണ്ട് പിന്നെ ഇന്ത്യ ഇപ്പോൾ കൂടുതലും മോഡേൺ ആയിക്കൊണ്ടിരിക്കയാണ് പഴയ കാലത്തെ വച്ചുനോക്കുമ്പോള് ഇപ്പോൾ ഒരുപാടൊരുപാട് വസ്ത്രങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒരുപാടൊരുപാട് മോഡേണായിക്കൊണ്ടിരിക്കുകയാണ് അത് എജ്യൂക്കേഷൻ എജ്യൂക്കേഷനതിലൊരുപാട് വലിയൊരു പങ്കു വഹിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വസ്ത്രധാരണം നമ്മളെ ഐഡൻറ്റിറ്റി വ്യക്താക്കും അതുകൊണ്ട് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് എന്നാലും കൂടുതലും സ്റ്റാൻഡേർഡായിട്ടുള്ളതാണ്